തീർച്ചയായിട്ടും നമ്മളിപ്പോൾ അടുത്തുള്ള നഗരങ്ങളിലേക്കോ പട്ടണത്തിലോട്ട് പോകുകയാണെങ്കിൽത്തന്നെ എന്താപറയുക നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പം നമ്മൾ പോകാത്ത സ്ഥലത്തൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് എന്തേങ്കിലുമൊരു ടെൻഷൻ ഉണ്ടാകാം നമ്മൾ നമ്മളുടെ നാടുവിട്ട് വേറെ സ്ഥലത്തോട്ട് പോകുകയാണ് അപ്പോൾ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്വാഭാവികമായിട്ട് നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ എന്താ പറയുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക എന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ എന്താ സ്ഥലം നല്ലതായിരിക്കോ പട്ടണങ്ങളൊക്കെ നഗരങ്ങളൊക്കെ ആൾക്കാരൊക്കെ എങ്ങനെ ആയിരിക്കും അപ്പം അങ്ങനത്തെ ഫുഡും കാര്യങ്ങളും അവിടുത്തെ സെറ്റിൽ ആകാനുള്ള കാര്യങ്ങളും എല്ലാംകൂടി നമുക്കെന്താ പറയുക നല്ല ആശങ്ക ഉണ്ടാകും അപ്പോൾ അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തോട്ട് പോകുകയാണെങ്കിലും ഒരു പട്ടണത്തിലോട്ടോ നഗരത്തിലോട്ടോ എങ്ങനേ ആയിക്കോട്ടെ നമ്മൾ നമ്മളുടെ നാടുവിട്ട് വേറേത് സ്ഥലത്തുപോയാലും നമുക്കതിനുള്ള ടെൻഷൻ എന്തായാലും ഉണ്ടാകും കാരണം നമുക്ക് പരിചയം ഇല്ലാത്ത സ്ഥലമാണ് അപ്പം അവിടെപ്പോയിട്ട് എങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ മേനേജ് ചെയ്യും എന്നൊക്കെ നമുക്ക് അറിയുന്നുണ്ടാകില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ആശങ്ക എന്തായാലും ഞങ്ങൾക്ക് ഉണ്ടാകാറുണ്ട് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അതിപ്പോൾ നമുക്കറിയാം എല്ലാ മനുഷ്യന്മാർക്കാണെങ്കിലും സ്വാഭാവികമായിട്ടും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തു പോകുമ്പം പൊതുവേ കുറേ മനുഷ്യന്മാർക്കാണെങ്കിലും അത്യാവശ്യം ആശങ്കകൾ ഉള്ളിൽക്കൊണ്ടു തന്നെയാണ് അവർ പോകുന്നത്